ആയോധനകല എന്നു പറഞ്ഞാൽ ഒരുപാടുണ്ട് കളരിയാണ് ആയോധനകല എന്നു പറയുന്നത് എന്നാൽ എനിക്ക് ഞാൻ പരിശീലിക്കുന്നത് എന്നു പറഞ്ഞാൽ കരാട്ടെയാണ് കരാട്ടെ ആണ് ഞാൻ പഠിക്കുന്നത് അത് കോളേജിലും സ്ക്കൂളിലൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീയായിട്ട് അവർ പഠിപ്പിച്ചു തരുന്നുണ്ട് അതായത് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണെങ്കിൽ മേ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഈ കരാട്ടെ പഠിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കോളേജിൽ നിന്ന് സ്കൂളലിൽനിന്നൊക്കെ ഞങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് പഠിപ്പിച്ച് തരാനായിട്ടു വേറെ ഒരാളെ നിയമിച്ചിട്ടുണ്ട് ഒരു അധ്യാപകനുമുണ്ട് അങ്ങനെ ഞങ്ങൾ ആ കാ കാ ഇതു പഠിക്കുന്നുണ്ട് കരാട്ടെ പഠിക്കുന്നുണ്ട് കരാട്ടെ പഠിക്കാൻ വീട്ടിൽ നിന്ന് ആരും സമ്മതിച്ചില്ലായിരുന്നു പിന്നെ സാർ വീട്ടിലേക്ക് വിളിച്ചിട്ടു പറഞ്ഞു കള കരാട്ടെ പഠിക്കുന്നത് നല്ലതാണ് പെൺകുട്ടികൾ അല്ലേ ആൺകുട്ടികളെ പോലെ അല്ലാലോ ആൺകുട്ടികളാണെങ്കിൽ ആരെങ്കിലും അവരുടെ നേരെ ആക്രമിക്കാൻ ഒക്കെ വന്നാൽ അവർ അടിച്ചും പിടിച്ചും ഒക്കെ അവർ രക്ഷപ്പെടും എന്നാൽ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒന്നും അറിയില്ല എന്നാൽ ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ കുട്ടികൾ ആരെങ്കിലും കു അവരെ നേരെ പോയാൽ തന്നെ അവർക്ക് നേരിടാൻ പറ്റും അവർ ഇവർക്കു കരാട്ടെ അറിയാമെന്നു പറഞ്ഞു പേടിച്ചു ഓടും ഈ ആക്രമിക്കാൻ വരുന്നവർത്തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സാർ വീട്ടിലുള്ളവരെ പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഞങ്ങൾക്കു എന്നെ കരാട്ടെ പഠിക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ പഠിച്ചു